നൃത്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പലവിധം നൃത്തങ്ങളുണ്ട് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി അല്ലാതെ നാടോടി നൃത്തം സംഘനൃത്തം അങ്ങനെ ഒട്ടനവധി നൃത്തങ്ങളുണ്ട് അല്ലാതെ തന്നെ വെസ്റ്റേൺ നൃത്തമെന്നത് പറയുന്നത് ഒരു കല തന്നെയാണ് നൃത്തത്തെ ആസ്വദിക്കാൻ കഴിയുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ പലരും എന്നിരുന്നാൽ പോലും അതിനെ അത്രയും വീക്ഷിച്ച് നോക്കി അത് അനുകരിച്ച് അതിനെ ചുവട് വയ്ക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഒരു കഴിവ് ലഭിക്കണമെന്നില്ല എന്നാൽപ്പോലും ഇത് ഈ കഴിവുള്ളവർ ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെ എന്നാൽ അവർക്ക് ഈ കലയോട് വല്ലാത്തൊരു പ്രണയമായിരിക്കും നൃത്തത്തോട് പ്രണയം തോന്നിയിട്ടുള്ളവർ എല്ലാവരിൽ നിന്നും ഒന്നിക്കാൻ അവിടെ തയ്യാറായിരിക്കും കാരണം അവർക്ക് ഒരുമിച്ച് ആ നൃത്തച്ചുവടുകൾ വെക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്തോഷം വർക്ക് ചിലപ്പോൾ വേറെ ഒന്നിലും തന്നെ ലഭിക്കി ലഭിക്കുകയില്ല അതുകൊണ്ടു തന്നെ ആസ്വദിക്കാൻ കഴിയുന്നവരും ഏറെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മള് തന്നെ നമുക്ക് തന്നെ നൃത്തം അറിയില്ലെങ്കിൽ പോലും അതിനെ ആസ്വദിക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇപ്പോൾ രണ്ട് രണ്ട് നാടുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അവർ രണ്ട് പേരും കൂടി ഒരു നൃത്തം വയ്ക്കുമ്പോൾ അത് രണ്ടുപേരും കൂടി ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന സന്തോഷവും അത് കാണുന്ന നമുക്ക് കിട്ടുന്ന സന്തോഷവും അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല നൃത്തം എന്ന് പറയുന്നത് ഒരു കലയുമാണ് സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ഒരു കല തന്നെയാണെന്ന് നമുക്ക് പറയാം